ഞാന് എനിക്ക് ഓൺലൈനില് ഒരു സ്മാർട്ട്ഫോൺ വേണം അത് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇരുപത്തി അയ്യായിരം രൂപയുടെ ഉള്ളിൽ വരുന്ന ക്യാമറ ക്ലാരിറ്റിയുള്ള അറുപതിനാല് പിക്സെല് ക്ലാമ്പ് ക്യാമറയുള്ള എയ്റ്റ് ജി ബി റാമുള്ള അതുപോലെതന്നെ വൺ ട്വൻറ്റിഎയ്റ്റ് ടു ഫിഫ്റ്റി സിക്സ് റോം കപ്പാസിറ്റിയുള്ള ഫ്രണ്ട് ക്യാമും ബാക്ക് ക്യാമും ക്ലാരിറ്റിയുള്ള വീഡിയോ പെർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫോൺ ഒരു സ്മാർട്ട്ഫോണാണ് വേണ്ടത് അത് ഒരു ഇരുപത്തയ്യായിരം മാക്സിമം റേഞ്ചിലുള്ള ഒരു ഫോൺ വേണം അതിൻ്റെ അപ്പോൾ ഈയൊരു സവിശേഷതകളുള്ള ഫോണിൻ്റെ ലിസ്റ്റുകൾ തരുമോ